എന്റെ വീട്ടില് ഞാന് ഒരുപാട് ചെടികള് വളര്ത്തുന്നുണ്ട് വള്ളിചെടിയായിട്ട് ഞാന് മൂലപ്പൂവാണ് വീട്ടിൽ വളര്ത്തുന്നത് അത് വലിയ വലിയ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഒരു മൂലപ്പൂവാണ് വീട്ടില് ഉള്ളത് അതുപോലെ ചെടികൾ എതൊക്കെയാണെന്നു ചോദിച്ചാല് ഡാലിയ റോസപ്പൂവ് പിന്നെ പത്തുമണി പൂവ് അങ്ങനെയുള്ള ചെടികളൊക്കെ വളര്ത്തുന്നുണ്ട് അതിന്റെ തന്നെ ഈ പത്തുമണിയുടെ തന്നെ വെ വെള്ള അതുപോലെ മഞ്ഞ റോസ് ഇങ്ങനെയുള്ള പല കളറിലുകളിലുള്ള പൂക്കളുണ്ട് അതുപോലെ റോസാണെങ്കിലും റോസ് മഞ്ഞ കളർ ഉള്ളത് റോസ് റെഡ്ഡ് അങ്ങനെയുള്ള കളർ കളര് ചെയിഞ്ച് ആയിട്ടുള്ള ഒരുപാട് പൂക്കള് ഇപ്പം റോസ് തന്നെ പല കളറുകൾ അങ്ങനെയാണ് വീട്ടില് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ അതുപോലെ ഡാലിയ പിന്നെ ജമന്തി ഇതൊക്കെ വീട്ടിൽ വളര്ത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് നമ്മുടെ ഗാര്ഡനില് തന്നെ ഒരുപാട് പൂക്കളുണ്ട് പിന്നെ അതുപോലെ ചെടി കുരുമുളക് പയർ അതുപോലുള്ള ചെടികളുണ്ട് വള്ളി അത് നമുക്ക് പച്ചക്കറിയിൽ പെടുത്താവുന്നതാണ് ഇപ്പം പയർ വര്ഗ്ഗങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് വള്ളിചെടിയായിട്ടു തന്നെ